ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റും ചെറിയ സംരംഭമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചർ കടയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു പഞ്ചർ കട ഉണ്ട് ആ പഞ്ചർ കടയുടെ ഏറ്റവും വലിയ പ്രത്യകത എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പഞ്ചർ കടയുടെ ആൾക്കാറ് ഈ പഞ്ചർ കട എത്തുന്നതിന് മുന്നേ ഉള്ള സ്ഥലങ്ങളിൽ ഈ തടി കഷ്ണങ്ങളിൽ ആണി അടിച്ച് വയ്ക്കും നടന്ന സംഭവമാണ് തടിക്കഷ്ണങ്ങളിൽ ആണി അടിച്ചു വെച്ചതിനുശേഷം ഈ വരുന്ന വണ്ടികളെല്ലാം ഈ തടിക്കഷ്ണത്തിൽ കയറുകയും ആണി പുറത്ത് കയറുകയും ഈ പഞ്ചർ കടയുടെ ഏറെക്കുറേ അടുത്ത് ഏത്തുമ്പോൾ അല്ലെങ്കിൽ ഈ പഞ്ചർ കട കഴിഞ്ഞു കുറച്ച് ദൂരം പോകുമ്പോഴോ ടയർ പഞ്ചർ ആകുന്ന ഒരു സ്ഥിരമായിട്ടൊരു പരിപാടി നമ്മൾ ഇവിടെ ഇവിടങ്ങളിൽ കണ്ട് വരാറുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചു ദൂരെ അങ്ങോട്ട് മാറി നിന്ന് തൊട്ടപ്പുറത്ത് പഞ്ചർ കട ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയിട്ട് പോലും പഞ്ചർ കടയുള്ള ആൾക്കാർ ഈ അവിടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വളരെ രസകരമായ വളരെ ഇൻറ്ററസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു അത് ഇപ്പോൾ ഇങ്ങനെയല്ല ഇപ്പോൾ പോലീസ് വന്ന് പോലീസ് പിടിച്ചു ഇപ്പോൾ വേറെ കുഴപ്പമോ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ മാന്യമായ രീതിയിൽ തന്നെയാണ് അവർ കടയും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പോഴും ഉണ്ട് ആ കട വളരെ ഇൻറ്ററസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്